വസ്ത്രങ്ങൾ നമ്മൾ കഴുകുന്നത് അന്നന്നിടുന്ന ഡ്രസ്സുകൾ അന്ന് മാറിയിട്ട് അന്നന്നുള്ള ഡ്രസ്സുകൾ കഴിവതും അന്നന്ന് തന്നെ കഴുകി എടുക്കാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത് അങ്ങനെ കൂട്ടി ഇടുന്ന ഒരു പരിപാടിയൊന്നും ഇല്ല ഒരാഴ്ച്ച കൂട്ടിയിട്ട് കഴുകുന്ന പരിപാടിയില്ല നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ വൃത്തിയായിട്ട് അന്നന്ന് നമ്മൾ കഴുകിയിടും അത് നമ്മൾ കൂടെ കഴുകാൻ ഉപയോഗിക്കുക നമ്മൾ സ്വന്തമായിട്ട് തന്നെ അലക്കുകല്ലിൽ കഴികിയെടുക്കുവാണ് അത് മഴ ഉള്ള സാഹചര്യത്തിലൊക്കെ നമ്മൾ നമ്മുടെ വീടിൻ്റെ ടെറസ്സിൻ്റെ മണ്ടയിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അവിടെ നമ്മൾ ഉണക്കാനായിട്ട് വിരിച്ചിടും പിന്നെ ഡ്രസ്സുകളൊക്ക നല്ല വൃത്തിക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ കാരണം നമുക്ക് ഇഷ്ടം പോലെ വെള്ളം ഉള്ളതുകൊണ്ട് വെള്ളം നല്ലതുപോലെ വാഷ് ചെയ്ത് പൈപ്പ് വെള്ളത്തിൽ തന്നെയാണ് കഴുകുന്നത് അല്ലാതെ തോടുകളിലോ ആറുകളിലോ ഒന്നും കൊണ്ടല്ല നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കഴുകി കംഫേർട്ട് ഒക്കെ ഇട്ട് പശയൊക്കെ മുക്കേണ്ടതിന് പശയൊക്കെ മുക്കി നല്ല രീതിയിൽ നമ്മൾ ടെറസിൻ്റെ മണ്ടയിൽ കൊണ്ട് വിരിച്ചിടും മഴയുള്ള സാഹചര്യത്തിൽ കാലാവസ്ഥ നമുക്ക് പ്രതികൂലമാണെങ്കിൽ നമ്മൾ ആ അവർ ആ ഡ്രസ്സ് അവിടെത്തന്നെ ഡ്രസ്സ് ഇടും പിന്നീട് വെയിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നല്ലതുപോലെ ഉണക്കിയെടുത്ത് നമ്മൾ അത് സൂക്ഷിക്കുകയാണ് നമ്മൾ അങ്ങനെ ഡ്രസ്സുകൾ മുഷിഞ്ഞ് ദിവസങ്ങളോളം ഇടാനുള്ള ഒരു സാഹചര്യമൊന്നും ഉപയോ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല എത്രത്തോളം നമ്മൾ ദിവസവും നമ്മൾ ഡ്രസ്സ് കഴുകി ദിവസവും നമ്മൾ സ്കൂളിൽ കുഞ്ഞുങ്ങളുടെ ഒക്കെ ആണെങ്കിലും യൂണിഫോം ഒക്കെയാ ഒക്കെ ആണെങ്കിലും ആ ഒരു ദിവസം ഇട്ടതും തന്നെ നമ്മൾ കഴുകി സ്കൂളിൽ നിന്ന് വിട്ട് കുഞ്ഞുങ്ങൾ വന്നാൽ കഴിവതും അന്ന് തന്നെ കഴുകി വൃത്തിയാക്കി ഇടാൻ ശ്രമിക്കാറുണ്ട് എന്തെങ്കിലും ചാൻസ് നമുക്ക് അതിൽ പിറ്റേ ദിവസം ഉറപ്പായിട്ടും അത് കഴുകി നമ്മൾ സൂക്ഷിക്കുന്നുണ്ട് അല്ലാതെ വാഷിംഗ് മെഷീനോ മറ്റുള്ള ഉപകരണങ്ങളോ ഒന്നും ഉപയോഗിച്ചല്ല നമുക്ക് എത്രത്തോളം ആരോഗ്യപരമായിട്ട് നമ്മൾ കല്ലിൽ തുണി കഴുകുന്നതുകൊണ്ട് നമുക്ക് അതിന് തക്കതുള്ള ആരോഗ്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് വാഷിംഗ് മെഷീനിലിട്ട് കഴുകുമ്പം നമുക്ക് അത് നമ്മുടെ മനസ്സിനിണങ്ങിയ ഒരു നമുക്കൊരു മനസ്സിനിണങ്ങിയൊരു സാഹചര്യത്തിൽ അത് കിട്ടാനായിട്ട് സാധിക്കില്ല പിന്നെ സാഹചര്യത്തിന് നമുക്ക് അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാരുമുണ്ട് കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടികളിലാണ് പക്ഷേ നമുക്ക് ഇപ്പം നമ്മുടെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അലക്കുകല്ലിൽ ഇട്ട് തന്നെ തുണി കഴുകി വൃത്തിയാക്കി എടുക്കുവാണ് അത് നമുക്ക് കൈക്കൊക്കെ ആണെങ്കിൽ നല്ല എക്സർസൈസ് തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ ശാരീരികമായിട്ട് നല്ല ഒരു ബലം തന്നെ ആണെന്നാണ് അഭിപ്രായം കാരണം അത് അതിനോളം നമുക്കൊരു ഇഷ്ടവും മനസ്സിനൊരു ഇതും തുണി കഴുകുന്നതുകൊണ്ട് നമുക്ക് ഒരു ആത്മസംതൃപ്തി എല്ലാം നമുക്ക് നമ്മുടെ തുണിയാണ് അതുപോലെ നല്ലതായിട്ട് വെള്ളം ഉപയോഗിച്ച് തന്നെയാണ് അപ്പം നമുക്ക് വെള്ളം ഒരുപാട് ഉപയോഗിക്കുന്ന ആളാണ് അപ്പോൾ വെള്ളം നമുക്ക് നല്ല രീതിയിൽ തന്നെ വേണം ഇവിടുന്ന് ഇഷ്ടം പോലെ വെള്ളത്തിൽ നല്ലപോലെ തുണിയൊക്കെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി ഉണക്കി എടുക്കും ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കൈക്കൊക്കെ ആണെങ്കിലും നല്ലൊരു എക്സർസൈസ് തന്നെയാണ് നമ്മൾ പുറത്തെ കല്ലിൽ തുണി അലക്കുന്നതുകൊണ്ട് ആ ഒരു അനുഭവം നമുക്ക് ഉണ്ടാവുന്നുണ്ട് നമുക്ക് കൂടുതലും നമ്മുടെ ഒരു ഉത്തരവാദിത്തം മെഷീനിൽ നമ്മൾ തുണി അലക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് രണ്ടും മൂന്നും ദിവസം കൂട്ടിയിട്ട് നമ്മൾ തുണി അലക്കുന്നൊരു പ്രവണതയാണ് അതേസമയം നമ്മൾ കല്ലിൽ അലക്കുവാണെങ്കിൽ നമുക്ക് അന്നന്നുള്ളത് ഒത്തിരി പെൻഡിങ്ങ് തുണികൾ അവിടെ വരാതിരിക്കാനും അതത് ദിവസത്തെ നനച്ചിടാനുള്ള ഒരു പ്രേരണയും എല്ലാം നമുക്ക് അതിൽ നിന്ന് ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് നല്ല രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം അലക്കുകല്ലിൽ തുണി അലക്കി വൃത്തിയാക്കുന്നതാണ് മനസ്സിനും ശരീരത്തിനുമെല്ലാം നല്ല ഒരു സംതൃപ്തി എന്ന് അനുഭവത്തിൽക്കൂടെ മനസ്സിലാകും